ഞാനെഴുതാൻ ആഗ്രഹിക്കുന്നു എന്നാൽ സന്ദേശം പുലർത്തുന്നതുമായ വിഷയമുണ്ട് മതപരമായ വിഷയങ്ങളാണ് എന്തുകൊണ്ട് അവ ഇന്ത്യയിൽ എഴുതാൻ പാടില്ല എന്നു ഞാൻ കരുതാൻ കാരണം ധാരാളം മതവർഗ്ഗീയത തുടരുന്നൊരു കാലഘട്ടമാണ് മതത്തിൻ്റെ പേരിൽ ധാരാളം ആളുകൾ പരസ്പരം കുത്തിയും അല്ല മുറിവേറ്റും മരിക്കപ്പെടുന്നൊരു കാലത്ത് മതസഹിഷ്ണുത ഇല്ലാതാക്കുക എന്നതു കൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എഴുതാൻ നെഗറ്റീവ് സെൻസിറ്റീവിൽ എഴുതാൻ പാടില്ല എന്നു കരുതുന്നു